മെക്കാനിക് അല്ലേ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല എന്തോ പ്രോബ്ലം ഉണ്ട് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് കാറ് കാറ്

എൻജിൻ പണി

ഓയിലൊക്കെ ചേഞ്ച് ചെയ്തതാണ്

പുകയൊക്കെ നോർമലാണ്

സ്റ്റാർട്ടാവുന്നില്ല ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുവാ

അ വർഷോപ്പിലേക്ക് കൊണ്ട് വരാൻ എത്ര പൈസ വരും

അ പിന്നെ ക്ലച്ച് ഒക്കെ കുറച്ച് എങ്ങാണ്ട് ഉള്ളു ഇനി അ ക്ലച്ചും വണ്ടി അ വർഷോപ്പിലോട്ട് കൊണ്ട് വരാൻ അ അ അ

വർഷോപ്പിലേക്ക് നാൾ മറ്റന്നാൾ ഫ്രീയാണ് മറ്റന്നാൾ കൊണ്ട് വരാം

പെട്ടെന്ന് അത്യാവശ്യം ഇല്ല നിങ്ങൾ സമയം പോലെ ചെയ്തു തന്നാൽ മതി വണ്ടി സെറ്റ് ആക്കി തന്നാൽ മതി

അ കൊണ്ട് വരാം ഓക്കെ